എനിക്ക് ട്രാക്ടറുകളെ കുറിച്ച് പിന്നെ അതി അതിൻ്റെ ബ്രാൻഡുകളെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് പിന്നെ എന്താ പറയുക പണ്ടുകാലങ്ങളിൽ ഒക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ നെല്ലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കാർഷികാവശ്യത്തിനായിട്ട് കള പറിക്കാനും ഉഴുതാനും അങ്ങനെ അങ്ങനെയുള്ള സംഗതികളൊക്കെ പണ്ടുകാലങ്ങളിൽ ട്രാക്റ്റുകളിൽ വരുന്നു എന്നുളളതല്ലാതെ അത് ഏതു കമ്പനിയുടേതാണ് എന്നൊന്നും നോക്കാനും വണ്ടിയോടെനിക്ക് ക്രേസില്ലാത്ത ഒരു വ്യക്തിയായത് കൊണ്ടായിരിക്കാം എനിക്കതിൻ്റെ ബ്രാൻഡുകളെ കുറിച്ചൊന്നും വലിയ കിർലോസ്കർ എന്നും പറഞ്ഞൊരു ബ്രാൻഡ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നേ ഈ പണ്ടൊക്കെ പരമ്പരാഗത രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ലേബർ മെയ്റ്റനനൻസ് ചാർജ് കൂടുതലുള്ള സമയം ആണ് കൂടുതൽ ദിവസം എടുക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ട്രാക്റ്റുകളൊക്കെ വന്നപ്പഴുത്തേനും നെല്ല് നെല്ല് പോലെ ഉള്ള ഇതിന് പിന്നെ അത് കള പറിക്കാനും ഉഴുതാൻ നെല്ല് വിതയ്ക്കാൻ കൊയ്യാൻ മെതിക്കാൻ അങ്ങനെ പേറ്റാൻ അങ്ങനെ ഉള്ള പാറ്റി ഇതിൻ്റെ പതിരും പുല്ലും പൊടിയും ഒക്കെ വേർതിരിച്ച് നെല്ല് നെല്ലായിട്ട് എടുക്കാനുമൊക്കെ ഉള്ള പുതിയ രീതിയിൽ ഉള്ള സംവിധാനങ്ങളൊക്കെയുണ്ട് പണ്ട് അങ്ങനെ ഉള്ളത് ഒന്നും ഇല്ല കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഉഴുതുവായിരുന്നു എന്ന് ഉള്ളതല്ലാതെ അല്ലേ കള പറിക്കും എന്ന് ഉള്ളതല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പരമ്പരാഗത ട്രാക്റ്ററുകളിൽ ഇല്ലായിരുന്നു ഇപ്പോളത്തേതിന് അകത്താണ് അത് കൂടുതലായിട്ടും വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻറ്റേതായിട്ടുള്ള സ്പീഡിൽ വർക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും

അതുകൊണ്ട് തന്നെ നമ്മളുടെ വിളകൾക്ക് സേഫായിട്ടുള്ളത് പുരാതന പരമ്പരാഗത രീതിയിലുള്ള ലേബർ